ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ചിത്രരചനയൊന്നും പഠിച്ചിട്ടില്ല ഏതെങ്കിലും പിക്ചർ ഇങ്ങനെ നോക്കി വരക്കലാണ് പതിവ് ചില സമയത്ത് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന പിക്ചർ വരയ്ക്കുക എന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഇങ്ങനെ എന്താണ് പറയുക എവിടുന്നും അങ്ങനെ ഒരു പഠിച്ചിട്ടില്ല ഈ ചിത്രരചന പഠിച്ചിട്ടില്ല പക്ഷേങ്കിൽ കേട്ടറിവുണ്ട് പിന്നെ കലാനിലയം ഈ ഡാൻസ് പാട്ട് ഇങ്ങനെ ഉള്ള പഠിപ്പിക്കുന്നിടത്ത് തന്നെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്ടിലും എല്ലാ ഏരിയാസിലും എന്ത് ഉണ്ടാവും ഇങ്ങനെയുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവും ആർട്ട് ഒക്കെ പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ള കഴിവുള്ള കുട്ടികൾ അവിടെ കൊണ്ട് പോയി ചേർത്ത് പഠിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആർട്ടിൽ മുന്നേറി വരണം എന്നുണ്ട് കാരണം എനിക്ക് ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുക ആവുമ്പോൾ വളരെ റെലാക്സേഷൻ ആണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു റെലാക്സേഷൻ ആണ് എവിടുന്നെന്നോ ഇല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇത് വരക്കുമ്പോൾ ഒക്കെ കിട്ടുന്നത് അപ്പം അതിൽ നിന്നെനിക്ക് മുന്നേറിയിട്ട് വരണം എന്ന് വളരെ ആഗ്രഹം ഉണ്ട്